ഏതൊക്കെ തരത്തിലുള്ള പാനിയങ്ങളാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചായ കാപ്പി നാരങ്ങാവെള്ളം ഷാർജ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഓരോ രീതിയില് ചെയ്യും ഓരോ സമയത്ത് തോന്നുന്ന രീതിയില് ചെയ്യും ഫ്രൂട്സുകളുടെ അവെയിലബിലിറ്റി അനുസരിച്ച് ഞാന് ഓരോന്ന് ഉണ്ടാക്കും ആപ്പിളുണ്ടെങ്കിൽ ചിലപ്പോൾ ആപ്പിള് വെച്ച് ഷാർജ അടിക്കും പഴമാണെന്നുണ്ടെങ്കിൽ പഴം വെച്ച് ജ്യൂസോ ഇതൊക്കെ അടിക്കും ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ ഏത്തയ്ക്ക വെച്ച് ചെയ്യും അങ്ങനെ പല രീതിയിലും പല ഇത് വെച്ച് തണ്ണിമത്തങ്ങാ ആണെങ്കിൽ തണ്ണിമത്തങ്ങാ അരിഞ്ഞിട്ട് പാലൊക്കെ ഒഴിച്ച് കസ്കസൊക്കെ ഇട്ട് എന്താ ഇത് പറഞ്ഞ കണക്ക് ജ്യൂസടിക്കും പിന്നേ ശമാമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് ഇത്പോലെ അടിക്കും ചൂട് സമയത്ത് നല്ല രീതിയില് തണ്ണിമത്തങ്ങ ജ്യൂസായിരുന്ന് പിന്നേ തിളപ്പിച്ച് ആറിയ വെള്ളവും അതിൻ്റെ കൂടെ കുടിക്കും കാര്യമായിട്ട് അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് വീട് വീടുകളില് അപ്പം ഓരോരോ വെറൈറ്റീസുണ്ടാക്കാനാണ് നോക്കുന്നത് പുതിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ നാരങ്ങാ വെള്ളം ആയാലും നാരങ്ങാവെള്ളത്തിനകത്ത് ഇച്ചിരി മുളകിട്ട് ഇഞ്ചിയിട്ട് ചെറുനാരങ്ങയുടെ തൊലി ഇട്ടൊക്കെ ഓരോ രീതിയിലടിക്കുന്ന രീതിയില് മൊജിറ്റോകളുണ്ടാക്കും ഓരോ ഫ്രൂ പഴവർഗങ്ങള് കിട്ടുന്നതിന് അനുസരിച്ചായിരിക്കും അതൊക്കെ ചെയ്യുന്നത്